രണ്ടായിരത്തി പതിനെട്ട് കാലയളവിൽ കേരളത്തിലെമ്പാടും പ്രളയത്തിൻ്റെ വലിയൊരു ഭീകരത വന്നു അനുഭവപ്പെട്ടു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത് കാലങ്ങളിൽ കൊറോണയെന്ന വൈറസ് ഈ ഭൂമിയിലേക്കു കടന്നുവന്നു ഇന്ത്യ എന്ന മഹാരാജ്യത്തേക്കും കേരളം എന്ന ചെറിയ സംസ്ഥാനത്തിലേക്കും പല ജില്ലകളിലേക്കും കടന്നുവന്നു ആ സമയങ്ങളില് ഏവരും ക്ലാസ്സുകളും കോളേജുകളും ഓഫീസുകളും എല്ലാം അടഞ്ഞ് എല്ലാവരും ഭവനങ്ങളില്ത്തന്നെ ഒത്തുകൂടി ഭവനങ്ങളില്ത്തന്നെ ഒത്തുകൂടിയിരുന്ന സമയത്ത് അവര് പലപ്പോഴും എല്ലാവരും ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു അവർക്കെല്ലാവരും നേരിട്ടൊരു പ്രധാനമായ ഒരു കാര്യമായിരുന്നു പ്രശ്നമായിരുന്നു എന്നുള്ളത് എങ്ങനെ അവരെ ഉള്ള മീഡിയാസ് കാര്യങ്ങള് എങ്ങനെ അവര് ഏറ്റെടുക്കുമെന്നുള്ളത് എങ്ങനെ അവര് മുമ്പോട്ടു നടക്കും എങ്ങനെ ക്ലാസ് മുമ്പോട്ടു നടക്കും എന്നുള്ളതൊക്കെ ആ അങ്ങനൊരു ടെൻഷൻ അടിച്ചൊരു വിഷമിച്ച കാലഘട്ടത്തില് അവർക്കു കടന്നുവന്നൊരു വലിയൊരു പ്രധാനപ്പെട്ട ഒരു വലിയൊരു എളുപ്പ വഴി അല്ലെങ്കിൽ വലിയൊരു ആശ്വാസകരമായ ഒരു കാര്യം തന്നെയായിരുന്നു ഒരു ഒരു ഓൺലൈൻ സൈറ്റ് ലഭിക്കുക എന്നുള്ളത് അതായത് ഓൺലൈൻ ക്ലാസസും അല്ലെങ്കില് ഓൺലൈൻ കോൺഫ്രൻസുകള് മറ്റൊക്കെ നടത്താനായിട്ട് അവര് എപ്പോഴും എടുത്തുവച്ചൊരു അവർക്കെന്നും അനുഭവപരമായ ഒരുരാശ്വാസകരമായൊരു കാര്യം തന്നെയായിരുന്നു പല നിരവധി ആപ്പുകളും വെബ്സൈറ്റുകളും ആ സമയത്തോണായി അതിലെ പ്രധാനമായിട്ട് ഒരു ആപ്പായിരുന്നു ഗൂഗിൾ മീറ്റ് അതോടൊപ്പം തന്നെ സൂം എന്നു പറയുന്ന ആപ്ലിക്കേഷൻ ഈ രണ്ട് പ്ലാറ്റ്ഫോമും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകള് ക്ലാസ് എടുക്കാൻ തന്നെയാണെങ്കിലും അതോടൊപ്പം തന്നെ അല്ലെങ്കില് കോൺഫറൻസുകളാവട്ടെ അങ്ങനെ മറ്റു തരം ഒരുപാട് ഒരു കൂട്ടം ഒരു ക്ലാസ് പോലെ തന്നെ ഒരു കൂട്ടം ആൾക്കാർക്ക് ഒരു സമയം അതിനകത്ത് ജോയിൻ ചെയ്യുവാനും അതിനകത്ത് നമുക്ക് സംസാരിക്കുവാനും മെസ്സേജ് നൽകുവാനും ഒക്കെ നൽകുന്ന ഒരു വലിയൊരു ഒരു ആശ്വാസകരമായ ഒരു കാര്യം തന്നെയായിരുന്നു ഒരു ആപ്പ് എന്നു പറയുന്നത് ആപ്പും വെബ്സൈറ്റും അതു വളരെയധികം യുവാക്കൾക്കായാലും തലമുറ വെച്ച് കുഞ്ഞുങ്ങൾക്കായാലും അതോടൊപ്പം തന്നെ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും വളരെയധികം ഹെല്പ്ഫുള്ളായിത്തീരുന്നു കാരണം അവര് ജോലിമണ്ഡലങ്ങളില് അതോടൊപ്പം തന്നെ പഠന മേഖലകളിലൊക്കെ അതൊരു വലിയൊരു ആശ്വാസത്തിനും കാരണമായിത്തീർന്നു അതു പലർക്കും വലിയൊരു പുതിയൊരു അനുഭവം കൂടി തന്നെയായിരുന്നു അതിലൂടെ തന്നെ പലർ അനായാസമായി ക്ലാസ്സുകള് അറ്റൻഡ്യ്യുവാനും അതോടൊപ്പം തന്നെ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുന്നതോടൊപ്പം തന്നെ പഠന മേഖലകളിലാകട്ടെ പഠിക്കാനും ഒക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിക്കൊണ്ടിരുന്നു ജോലി ജോലി ചെയ്യുവാനും ഒക്കെയും ഈ ഒരു ആപ്പുകള് വളരയധികം ഹെൽപ്ഫുള്ളായിരുന്നു എൻ്റെ കാലഘട്ടത്തില് എനിക്കും ആ സമയങ്ങളിൽ എൻ്റെ ക്ലാസുകളുമൊക്കെ നടുന്നത് ഗൂഗിൾ മീറ്റ് വഴിയും സൂം വഴിയൊക്കെയായിരുന്നു അതിന് അതിനകത്തു കയറി നമുക്കുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കില് നമുക്കു ചോദിക്കാം മൈക്ക് ഓണാക്കാനും അതോടൊപ്പംതന്നെ തന്നെ വീഡിയോ ഓണാക്കാനുമൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അതുവഴി നമുക്ക് കണ്ടും കേട്ടുമൊക്കെ നമുക്ക് സംസാരിക്കാനും പഠിക്കാനുമൊക്കെ കഴിയും അനയാസമായി പഠിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ഞാനൊരു ഓർഗനൈസേഷനില് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോള് അതിനകത്തെ ആ ഓര്ഗൈസേഷന്റെ അണ്ടറിൽ നടക്കുന്ന പ്രോഗ്രാംസായാലും ഇനി കമിങ് പ്രോഗ്രാംസ് ഷെഡ്യൂളെയ്യുന്നതിനൊക്കെയും പ്ലാനിങ് ചെയ്യാനൊക്കെയും ഞങ്ങള്ക്ക് ആപ്പ് വളരെയധികം ഹെപ്ഫുള്ളായിരുന്നു ഈ സൂമ് ഗൂഗിൾ മീറ്റ് എന്നു പറയുന്ന ആപ്പുകള് അതോടൊപ്പം തന്നെ ഒരുപാട് അതിനു ശേഷം അതിൻ്റെ ഒരു വിജയം കണ്ടതിനു ശേഷം ഒരുപാട് കമ്പനികൾ ഒരുപാട് ഇൻഡിവിജ്വലായിട്ട് തന്നെ ഒരുപാട് സ്റ്റാ സ്റ്റാർട്ടപ്പ്സ് അതിനെത്തുടര്ന്നു തന്നെ ചെയ്യുവാൻ ഒരുപാട് കമ്പനികൾ വെബ്സൈറ്റുകളൊക്കെ ആപ്പുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടര്ന്നും പലർക്കും സാധിച്ചിട്ടുണ്ട് അത് ഇന്നും നിലനിന്നു പോകുന്നു ഇന്നും പലർക്കും അത് ഒരു ഹെൽപ്ഫുള്ളായിക്കൊണ്ടിരിക്കുന്നു ഏകദേശം നാലു വർഷത്തോളം കഴിയുന്നു എന്നിട്ടും പക്ഷെ എന്നാലും ഇപ്പോഴും പല ആൾക്കാരും അതിൽ തന്നെ ആശ്രയിച്ച് കാരണം പോകുന്നു കാരണം അതൊരു വലിയൊരു വലിയൊരു മാറ്റത്തിനു തന്നെ അല്ലെങ്കിൽ വലിയൊരു അനുഭവത്തിന് നല്ലൊരു ഒരു ആശ്വാസത്തിന് കാരണമായിത്തന്നെ തീരുന്നു ആ ആരാ ആപ്പുകളും വെബ്സൈറ്റുകളും ഒക്കെ നമ്മള് മീറ്റിങ്ങില് പങ്കെടുക്കാനൊക്കെ വിതൂര നമ്മള് പല സ്ഥലങ്ങള് അത് അതിൻ്റെ ഏറ്റവും വലയ പ്രധാനപ്പെട്ട കാര്യം പല സ്ഥലങ്ങളിൽ ഇരുന്നിട്ടുള്ളവർക്കാണ് അതായത് അടുത്തുള്ളവർക്കു മാത്രമല്ല പല രാജ്യങ്ങളിലും പല ഏതു രാജ്യങ്ങളിലും ഏത് സ്ഥലത്തായിക്കോട്ടെ പല സ്ഥലങ്ങളില് ഇരുന്നുകൊണ്ട് പല രാജ്യങ്ങളില് ഇരുന്നുകൊണ്ടുതന്നെ നമുക്ക് ആ ഒരു ആപ്പിനകത്തു കൂടി നമുക്ക് ആ ഒരു കോൺഫറൻസ് അല്ലെങ്കിൽ ആ ഒരു മീറ്റിംഗ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയും അതാണ് ഏറ്റവും വലിയൊരു ഹെൽപ്ഫുൾ അല്ലെങ്കില് ഏറ്റവും വലിയൊരു ആശ്വാസം സഹായവുമായിത്തീർന്നത് അത് അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനൊരു നെഗറ്റീവ് എന്നു പറയാൻ തക്കവണ്ണം ഉള്ളൊരു കാര്യമെന്നു പറഞ്ഞാല് ഒരുപാട് ഇൻറർനെറ്റ് അതിന് ഡേറ്റാ ഒരുപാട് പിടിക്കുന്നുണ്ടായിരുന്നു ഇപ്പോള് പല പല സലങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ അല്ലെങ്കില് പല സ്ഥലങ്ങളിലിപ്പോഴും ഇൻറർനെറ്റിൻ്റെ സൗകര്യം ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഈ ഇൻറർനെറ്റ് ഇല്ലാത്തതു മൂലം ഈ ആപ്പുകളും മറ്റും അല്ലെങ്കില് ഈ മീറ്റിങ്ങൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റാത്തത് അങ്ങനെയുള്ളവർക്കു വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എന്നാല് ഒരുവിധം കുട്ടികൾക്കാണെങ്കിലും യുവാക്കൾക്കാണെങ്കിലും എല്ലാം ഉപയോഗിക്കാൻ തരത്തിലുള്ള വളരെയധികം അനായാസമായ ഈസിയായിട്ടുള്ള തരത്തിലായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ നടന്നു വരുന്നത് അതിന് നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞത് അതോടൊപ്പം തന്നെ ഇൻറർനെറ്റിൻ്റെ ഒരു ലഭ്യത വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അതിനകത്ത് അതിലുപരി അതു വഴി ഒരുപാട് പുതിയ പുതിയ അനുഭവങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അതിന് മാതാപിതാക്കളോടു പ്രായഭേദം തന്നെ അത് ഉപയോഗിക്കാൻ വളരെയധികം അനായാസമായിരുന്നു അതുകൊണ്ട് ഈ ആപ്പും വെബ്സൈറ്റുമൊക്കെയും നമുക്കേതൊരു അപകടമേഖലകൾ അല്ലെങ്കിൽ ഏതൊരു അടിയന്തരവസ്ഥയിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന അല്ലെങ്കില് ഇനി എന്ത് ഇനി ഒന്നും ഇല്ല എന്നൊക്കെ നമ്മള് ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് ഇനി എങ്ങനെ ക്ലാസ് മുമ്പോട്ട് നടത്തും അല്ലെങ്കില് ഇനി എങ്ങനെ മീറ്റിംഗ്സിനി മുമ്പോട്ട് നടത്തും എന്നൊക്കെ വേദനപ്പെട്ട് പ്രതികൂലത്തിൻ്റെ നിഴലിലായിരിക്കുമ്പോൾ ആയിരുന്ന സമയത്താണ് ഈ ഒരു ആപ്പ് വെബ്സൈറ്റാക്കെ വളരെ അധികം ഹെൽപ്ഫുള്ളായിരുന്നത് അത് മനുഷ്യൻ്റെ കണ്ടുപിടുത്തം എന്നു തന്നെ വേണമെങ്കില് പറയാം അത് ആ ഒരു കണ്ടുപിടുത്തം വളരെയധികം ഹെൽപ്ഫുള്ളായിത്തീർന്നു വളരെയധികം ഒരു വെൽ ആശ്വാസത്തിന് കാരണമായിത്തീർന്നു അങ്ങനെ ഈ ആപ്പുകളൊക്കെയും എൻ്റെ ജീവിതത്തിനും വളരെയധികം ഇഷ്ടം എനിക്കൊരു വളരെ ഒരു ഇഷ്ടപ്പെടുവാനും എനിക്കിടയായിത്തീർന്നു ഈ ഒരു കോൺഫറൻസ് നടത്താനും വീഡിയോ കോള് കോൺഫൻസ് അല്ലെങ്കില് ഓഡിയോ കോൺഫറൻസൊക്കെ നടത്താനായിട്ട് ഈ ആപ്പുകളും വെബ്സൈറ്റുകളൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെടുവാനും എനിക്കതനുഭവിക്കാനിടയായിത്തീർന്നു അതിനകത്താകെ ഒരു നെഗറ്റീവ് എനിക്കിഷ്ടപ്പെടാഞ്ഞത് എന്നു പറയാന് തക്കവണ്ണമാണെങ്കില് അതിനകത്ത് ചെയ്യാൻ പറ്റുക ഇൻറർനെറ്റ് ഒരുപാട് പിടിക്കുന്നു എന്നുള്ളതാണ് ഒരുപാട് നമ്മുടെ ഡെയിലി ഇൻറർനെറ്റ് തന്നെ അത് ജസ്റ്റ് ഒരു ഹാഫ് ആൻ ഹവർ കൂടുതല് ഇരിക്കുമ്പോള് തന്നെ അതിൻ്റെ ലഭ്യത കുറയുന്നു അതോടൊപ്പം തന്നെ സൂം എന്നുള്ള പ്ലാറ്റ്ഫോമിൽ തന്നെയാണെങ്കില് നമുക്ക് ഫോർട്ടി ഫൈവ് മിനിറ്റ്സില് കൂടുതല് നമുക്കൊരു മീറ്റിംഗ് നമുക്ക് അറ്റെൻഡ് ചെയ്യാൻ പറ്റത്തില്ല ഫോർട്ടി ഫൈവ് മിനറ്റ്സ് കഴിയുമ്പോഴേ അതിൻ്റെ ആ ഇത് തീരും പിന്നെ നമ്മളല്ലെങ്കില് പ്രൊ വേരിയന്റ് എടുക്കേണ്ടിവരും പ്രൊ വേർഷൻ എടുക്കുമ്പോള് ഏകദേശം പേയ്മെന്റ് ചെയ്തു നമുക്കു ചെയ്യേണ്ടിവരും പക്ഷെ ഗൂഗിൾ മീറ്റ് സംബന്ധിച്ചങ്ങനെയല്ല ഗൂഗിൾ മീറ്റ് നമുക്കെത്ര സമയം വേണമെങ്കിലും നമുക്കെടുക്കാം അതു വളരെ ഒരു ഹെൽപ്പ്ഫുൾ ആയിരുന്നു അത് ഇപ്പോഴത്തെ തലമുറകളാണെങ്കിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുപാട് പേരിലും പല സ്ഥലങ്ങളിൽ നിന്നും ഉപയോഗിക്കുന്നുണ്ട് അത് അവര് ഇതിൻ്റെ ഒരു ലഭ്യത മനസ്സിലാക്കിയതുകൊണ്ടാണ് ഇതിനൊരു ഈസിനെസ് മൻസ്സിലാക്കിക്കൊണ്ടാണ് അത് എൻ്റെ ജീവിതത്തിനും വളരെ ഒരു അനുഗ്രഹം ഒരു വലിയൊരു ആശ്വാസത്തിനും ഒരു പുതിയൊരു അനുഭവത്തിനു കാരണമായിത്തീർന്നു